ഒരു ബിസിനസ്സ്കാരൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായും അയാളൊരു വൻ നല്ലൊരു സന്മനസ്സിൻ്റെ ഉടമ ആയിരിക്കണം എന്നുള്ള നിർബന്ധം പിന്നെരു ബിസിനസ്സ്കാരനാകുമ്പം എന്താകണം നല്ല സ്ട്രാറ്റജികൾ നല്ല തന്ത്രങ്ങൾ അറിയണം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തൊരു ബിസിനസ്സ് മാൻ പിടിച്ച് നിൽക്കണമെങ്കിൽ വളരെയധികം തന്ത്രജ്നായിരിക്കണം ആൾ നല്ലൊരു എബിലിറ്റി നല്ലൊരു കൈ വഴക്കമുണ്ടായിരിക്കണം ബിസിനസ്സിൻ്റെ ഓരോ കാര്യങ്ങളെ കുറിച്ചും ബിസിനസ്സക്കെ ഇറങ്ങുന്നതിൻ്റെ മുമ്പന്നെ ഒരാൾ എന്ത് ചെയ്യണം നന്നായി ബിസിനസ്സ് ക്ലാസിഫേഡുകളും അതുപോലത്തെ സാധനം പത്രങ്ങളും കാര്യങ്ങളൊക്കെ വായിച്ചോണ്ട് ബിസിനസ് ലോകം ഇന്നത്തെ ഈ കാലത്തെ ഇന്നത്തെ കാലത്തെ ബിസിനസ് ലോകം എങ്ങനെയാണ് ഞാൻ ഇന്നത്തെ കാലത്ത് എങ്ങനത്തെ എങ്ങനത്തെ രൂപത്തിലുള്ള ബിസിനസ്സുകളാണ് മുന്നോട്ട് പോകുക എങ്ങനൊക്കെയാണ് ബിസിനസ്സിനെ നമ്മൾ ഏതൊക്കെ വ്യു എന്നാണ് ഏതൊക്കെ ഭാഗത്ത് വിഭാഗങ്ങളിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത് ബിസിനസ്സിനെക്കുറിച്ച് അങ്ങനെ ഓരോ കാര്യങ്ങളും ബിസിനസ്സിനെക്കുറിച്ച് നമ്മൾ ഓരോന്നും എടുത്ത് എടുത്ത് പഠിച്ച് പഠിച്ച് നല്ലൊരു നല്ലൊരു ഒരു സംരംഭം തുടങ്ങുക അപ്പോൾ ഒരു യഥാർത്ഥ ഒരു വിശ്വാസം ആവുള്ളൂ ഒരു ഫുൾ അയാൾക്ക് അപ്പോൾ അയാൾ ഡ്രീംസ് ത്രൂ ബിസിനസ്സ് ആ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ അവിടെ ബിസിനസ്സ് ഒരു നല്ലൊരു മുന്നേറ്റം നേടിയെടുക്കണമെങ്കിൽ തീർച്ചയായും അവിടെ ഒരു നല്ലൊരു ഇതു വേണം നല്ലൊരു കഴിവ് അവിടെ വേണം അതുപോലെ തന്നെ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഒരാൾക്കെന്ന് തടണംൻ നല്ല മുൻകൂട്ടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം ഏ പിന്നെ ഇന്ന ഇന്ന സീസൺണ് വരുള്ളൂ അപ്പം ഇന്ന കാര്യങ്ങൾ ഇവിടെ ചെയ്യണം ഇന്ന കാര്യങ്ങൾ ചെയ്താലാണ് ഇവിടെ മാർക്കറ്റിങ് ഉണ്ടാവുക അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ പരസ്യം ചെയ്യാൻ ഉപയോഗിക്കണം അങ്ങനെ അഡ്വർടൈസ്മെൻറ് കാര്യങ്ങൾ അതുപോലത്തെ കാര്യങ്ങൾ പലതും അങ്ങനെ എന്താക്കണം മുൻകൂട്ടി ചെയ്യാനുള്ള ഭയങ്കര ഒരു വലിയ കാര്യമാണ് ആ മുൻകൂട്ടി അതാ ഫോർകാസ്റ്റിങ് എന്ന് പറയും ഇംഗ്ലീഷിൽ ആ ഒരു സാധനം ഇന്ന് വളരെ ആനിവാര്യമായ കാര്യമാണ് വളരെ ആനിവാര്യമായ സാധനമാണ് എന്തേ ബിസിനസ്സിനെ മുൻകൂട്ടി കാണുക എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ കാലത്ത് ബിസിനസ്സ് മുന്നോട്ട് കൊണ്ട് പോകണമെങ്കിൽ ആരെടുത്താണെങ്കിലും വലിയ വലിയ ആരെ എടുക്കുകയാണെങ്കിലും നമുക്ക് മനസ്സിലൊക്കെ ഏ ഓരോരോ ഓരോ കുടിച്ച് ഓലോ ജീ ജീവചരിത്രങ്ങളെ കുടിച്ച് പഠിച്ചാലൊക്കെ നമുക്ക് മനസ്സിലാകും പിന്നെയുള്ള നമ്മൾ റിസ്ക് ബിസിനസ്സിൽ ഏറ്റവും വലിയ കാര്യമാണ് റിസ്ക് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ വരാം അതിൽ റിസ്ക് ആ പ്രോഫിറ്റ ആണോ ലോസണോ കിട്ടുക നമുക്ക് അറിയില്ല അപ്പം ആ ഒരു റിസ്ക്ക ആണോ നമ്മൾക്ക് പൈസ ഇറക്കുമ്പോൾ അത് പ്രോഫിറ്റിക്കാണോ ലോസ് ആയിട്ടാണോ തിരിച്ച് കിട്ടുക പ്രോഫിറ്റ് ആയിട്ടാണോ തിരിച്ച് കിട്ടുക നമുക്ക് അറിയില്ല ആ അറിയാത്തൊരു റിസ്ക് റിസ്ക്ക് നമ്മൾ എടുത്തത് കൊണ്ടാണ് നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട ചെയ്യുന്നത് അപ്പോൾ ആ ഒരു റിസ്ക് എടുക്കാനുള്ളൊരു മനസ്സുണ്ടായിരുന്നു ഒരു മനോദൈര്യം ഉണ്ടായിരിക്കണം ഈ വക ബിസിനസ്സ് പൊട്ടി ആയാലൊന്നും നമ്മൾ എന്തായരുത് അങ്ങനെടു തളരരുത് എൻ്റെ ഒരു മനോദൈര്യമുള്ളവർ മാത്രം ഈ ബിസിനസ്സിനുള്ള ഒരു കാര്യത്തിന് നിന്ന് അത് ഈ ഫോർ മുൻകൂട്ടി ചെയ്യാൻ പറ്റണം പിന്നെ നഷ്ടമാണോ ലാഭമാണ് അതിൻ്റെ റിസ്ക്ക് ഏറ്റെടുക്കുക നമ്മൾ പ്രാപ്തരായിരിക്കണം അല്ലാതൊരു ബിസിനസ് പൊട്ടുമ്പോഴത്തെ നമ്മൾ പെരയും കൂടി വിൽക്കാനുള്ള സാഹചര്യത്തിൽ എ തന്നെ നമ്മൾ ഇതിന് നിൽക്കരുത് ഒക്കെ പ്രാപ്തനാകുക നോക്കിയിട്ട് മാത്രം അതിലേക്ക് ഇറങ്ങുക